എനിക്ക് ഏറ്റവും കൂടുതല് പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് അത് മെൻസ്ട്രൽ കപ്പ് ആണ് കേട്ടോ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് പാടിന്റെ പാഡിനേക്കാൾ എത്രെ ഒരുപാട് അമ്ക്ക് കൻഫോപ് കംഫർട്ടബിളാണ് കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പം ട്രാവല് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടൊ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവര് ആണേൽ ആയിക്കോട്ടെ സിമ്മ് ചെയ്യുന്നവര് അവർക്കൊക്കെ നല്ല ഒരു പ്രൊഡക്ട് ആണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് പിന്നേ പിന്നെ അതുപോലെ നമുക്ക് ഇത് ടെൻ ഹവേഴ്സ്സ് വരെയൊക്കെ നമുക്ക് ഇത് വയ്ക്കാം പാഡ് ആകുമ്പോൾ നമുക്ക് ഫോർ ടു സിക്സ് ഹവേഴ്സ്സ് ആകുമ്പം നമുക്ക് മാറ്റിയും കൊണ്ടിരിക്കണമല്ലൊ ഇതാകുമ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നില്ല നമുക്ക് ടെൻ ഹവേഴ്സ്സ് ആന്ന് അയിൻ്റെ ഇത് പറയ്ണത് അമ്മക്ക് ടെൻ ഹവേഴ്സ്സ് വരെ നമുക്കിത് നമുക്കവിടെ ഇരിക്ക പിന്നെ മാത്രല്ല ഇപ്പം മാരേജ് കഴിഞ്ഞവർക്കാണെങ്കിലും മാരേജ് കഴിയാത്തവർക്കാണെങ്കിലും ഒക്കെ ഡിഫറൻറ്റ് സൈസില് നമുക്കിത് അവൈലബിളാണ് പിന്നെ നല്ല ഫ്ലെക്സിബിളാണ് സോഫ്റ്റാണ് പിന്നെ ലീക്കേജിൻ്റെ പ്രശ്നം വരിക അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ അതേപോലെ ഒരു പ്രധാ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു യൂസ് ഫുള് എന്ന് പറഞ്ഞാല് അത് നമ്മളുടെ എൻവെയൺമെൻറ്റിന് തന്നെ നല്ലൊര് കംഫോർട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഇതാകുമ്പം നമുക്ക് ഡിസ്പോസ് ചെയ്യണ്ട ആവശ്യം ഒന്നും വരുന്നില്ല അതിൻ്റെ ടെൻ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് യൂസ് ചെയ്യാന് ഭയങ്കര എളുപ്പമാണ് നമ്മള് എങ്ങനെയെക്കെയാണത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസിനൊക്കെ ആ ഒരു ബോക്സില് നമുക്ക് തന്നിട്ടുണ്ടാകും അത് അനുസരിച്ചിട്ട് നമ്മള് ചെയ്താൽ മതി പിന്നെ നമുക്കത് ടെൻ ഇയേഴ്സ്സ് വരെ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളെനമ്മള് എങ്ങനെയെക്കെയാണത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസിനൊക്കെ ആ ഒരു ബോക്സില് നമുക്ക് തന്നിട്ടുണ്ടാകും അത് അനുസരിച്ചിട്ട് നമ്മള് ചെയ്താൽ മതി പിന്നെ നമുക്കത് ടെൻ ഇയേഴ്സ്സ് വരെ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളെ പൈസേൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു നമുക്ക് അതൊരു നല്ല ഒരിത് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് അത്രയും പൈസയ്ക്ക് ലാഭമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുക പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിലും ഒന്നും ഒരു കുഴപ്പവും വരില്ല പിന്നെ നമ്മള് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒരു വാം വാട്ടർ യിൽ ഒന്ന് ഇട്ട് വെച്ചാൽ മതി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അതേപോലെതന്നെ നമ്മളത് നമ്മള് ഇത് കഴിഞ്ഞാലും മെൻസസ്സ് പിരീഡ് കഴിയുന്ന ടൈമിലും ഇതേപോലെ തന്നെ നമ്മള് വാം വാട്ടറില് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെച്ചിട്ട് അത് എടുത്തേക്കണ്ട ആവിശ്യമേയുള്ളു വരുന്നത് അല്ലാതെ നമുക്ക് ഡിസ്പോസ് ചെയ്യണ്ട ടെൻഷനോ കാര്യങ്ങളോ ഒന്നു ഇല്ല എന്ത് കൊണ്ടും ബെറ്റർ ആണ് നല്ലതാണ് പിന്നേ എല്ലാവർക്കും പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതും നമുക്ക് റെക്കമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഒരു പ്രൊഡക്റ്റാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാല് നല്ല പ്രൊഡക്റ്റാണ്